പാലക്കാട് ജില്ലയെന്നു പറയണത് വളരെ ഗ്രാമീണമായ പ്രദേശമാണ് എന്നാൽ സിറ്റിയാണ് അപ്പോൾ രണ്ടും കൂടി മിക്സായിട്ടുള്ളൊരു ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഭൂരിഭാഗം ആൾക്കാരിന് ആൾക്കാരുടെ ഫാമിലി ബാക്ക്ഗ്രൌണ്ട് നോക്കുമ്പോൾ അവരുടെ പഴയ അവരുടെ കാരണവന്മാരൊക്കെ കൃഷി കൃഷി ചെയ്തിരുന്നവരാണ് ഇന്നും അത് നിലനിർത്തിക്കൊണ്ടോണവരുണ്ട് അല്ലാതേയും എന്താ പുതിയ ബിസ്സിനസ്സായിട്ടും അല്ലെങ്കിൽ വേറെ സർക്കാർ ജോലികളും അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലികളൊക്കെ അന്വേഷിച്ച് അത് ഇഷ്ടപ്പെട്ട് അതിനു വേണ്ടി അതിനു വേണ്ടി അന്വേഷിച്ചു പോകുന്നവരും അങ്ങനത്തെ ജോലികൾ ചെയ്ത് ചെയ്യുന്നവരും ഉണ്ട് ഇപ്പോൾ പാലക്കാടിൻ്റെ ഒരു ഉപജീവനം മെയിൻ ആയിട്ട് പണ്ട് പണ്ട് കാലത്തൊക്കെ ഉപജീവനമാർഗ്ഗം എന്ന് പറയുമ്പോൾ പാലക്കാടിലത്തെ ആൾക്കാർക്കെന്നു പറയണത് കൃഷിതന്നെയായിരുന്നു ഇന്നും പാലക്കാടില് നെല്ല് പലയിടത്തും നെല്ല് കൃഷി നടത്താറുണ്ട് നെല്ല് മാത്രല്ല പല രീതിയിലുള്ള നാടൻ പച്ചക്കറികളും ഒക്കെ പാലക്കാട് കൃഷിചെയ്യാറുണ്ട് ഇന്നും അതൊക്കെ കൃഷി ചെയ്ത് അതിൽ നിന്ന് ഉപജീവനമാർഗ്ഗം കണ്ടെത്തി ജീവിച്ചു പോകുന്നവരാണ് പല പലയിടത്തും പാലക്കാട് ജില്ലയിലുള്ളവർ ഇപ്പോൾ ഈ മെയിനായിട്ട് ഒറ്റപ്പാലം ഭാഗം മുണ്ടൂര് അതേമാതിരി എല്ലാ ഭാഗത്തും ഈ കൃഷി രീതികളെ പിന്തുടർന്ന് അതും ഒരു കൃഷിയും ഒരുമിച്ച് നമ്മുടെ മറ്റുള്ള തലമുറകൾക്ക് മറ്റുള്ള തലമുറകളിലേക്ക് എത്തിച്ചുകൊടുക്കണം കൃഷി ഒരു എന്താ പറയുക കൃഷി നിന്നു പോവരുത് മൊത്തം ഈ ബിസ്നെസ്സ് അല്ലെങ്കിൽ മറ്റു ജോലികളും മാത്രമായിട്ട് പാലക്കാട് ജില്ലയിൽ അത് മാത്രം ആവരുത് കൃഷിയും ഒപ്പം കൊണ്ടുപോകണം എന്നുള്ളൊരു രീതിയിൽ അങ്ങനെയൊരു മനസ്സുള്ള ആൾക്കാരും പാലക്കാട് ജില്ലയിലുണ്ട് അതേമാതിരി എന്താ പറയുക സർക്കാർ ജോലികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതേമാതിരി പ്രൈവറ്റായിട്ട് മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് പാലക്കാട് ജില്ലയിൽ തൊഴിലില്ലായ്മ ജില്ലയിൽ തൊഴിലില്ലായ്മ വ്യാപകമായിട്ടുണ്ടോയെന്നു ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ മറ്റുള്ള എല്ലാ ജില്ലയിലെപ്പോലെത്തന്നെ പാലക്കാട് ജില്ലയിലും ഉണ്ട് അതിപ്പോൾ കൃഷി കൃഷി ഇഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ വേറെ സർക്കാർ ജോലി അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയൊക്കെ അന്വേഷിച്ചു പോകുന്നവർക്കാണ് ഇങ്ങനെയൊരു എന്താ പറയുക സ്ഥിതി വരുന്നത് അല്ലെങ്കിൽ അല്ലാത്തവർക്ക് കൃഷിയെ ഇഷ്ടപ്പെട്ട് അതിനോട് അതിൽ നിന്ന് വരുമാനം കിട്ടി ജീവിക്കുന്ന ജീവിക്കുന്ന ആൾക്കാർക്ക് പിന്നെയും കൊഴപ്പമില്ല